ഞങ്ങൾ ഞങ്ങളുടെ വിളകൾ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ കയർ കെട്ടും ഇപ്പം ഒന്നര ഏക്കറ് പയർ തോട്ടം ഒക്കെ ആണെങ്കിൽ അവിടെ ഫുള്ള് വേലി ഒക്കെ കെട്ടി സംരക്ഷിക്കും പിന്നെ കാവൽ കിടക്കും അങ്ങനെയൊക്കെയാണ് കാട്ടിന്ന് മൃഗങ്ങൾ കുരങ്ങ് ആന മാൻ ഇങ്ങനെയൊക്കെയാണ് വരാറ് പിന്നെ കുറെ പാട്ടയെക്കെ കെട്ടിയിടും പിന്നെ ഉറങ്ങാതെ ഇങ്ങനെ കാവലിരിക്കും പിന്നെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പം അത് വരുത്തന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറെ പയർ അങ്ങനെ പയർ കഴിക്കും പിന്നെ വാഴ ആണെങ്കിൽ വാഴക്കൊല കൊണ്ടവും ആന ഇറങ്ങുവാണെങ്കിൽ ആന വാഴ ഒക്കെ ചവിട്ടി എല്ലാം നശിപ്പിച്ച് അങ്ങനെ അങ്ങനെ കുറെ നഷ്ടങ്ങൾ വരാറുണ്ട് പിന്നെ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ കാറ്റടിച്ച് അങ്ങനേം കൃഷികൾ എല്ലാം നഷ്ടം ആകാറുണ്ട്